പുതിയ പ്രവണതകളെ കുറിച്ചറിയാൻ നമ്മൾ പല രീതിയിലുള്ള ചിത്രശാലകൾ ചിത്ര ശാലകളാണ് നമ്മള് സന്ദർശിക്കുന്നത് അതിപ്പം പുതിയ പഴയ കാലത്തെ പെയിൻറ്റിങ് പഴയ കാലത്തെ ഇത് കൾച്ചേർസ് കാണിക്കുന്ന പെയിൻറ്റിങ്സും ഇല്ലേ ചിത്ര ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് കാണാൻ പോകും കാരണം ഇപ്പോഴത്തെ കാലം അപ്പഴത്തെ കാലം ഒക്കെ വെച്ച് നോക്കി കഴിയുമ്പം എന്തൊക്കെ വ്യത്യാസം വരുവെന്ന് നമ്മൾ കാരണം നല്ല രീതിയിലാണ് പല പല എൻ്റെ പൊന്നെ ഒടുക്കത്തെ വ്യത്യാസവാട്ടോ കാരണം നമ്മള് വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള് പണ്ടത്തെയൊക്കെ വെച്ച് നോക്കുമ്പഴേ ഇപ്പം എന്തോരം ഇതാ ആയെ നമ്മളൊക്കെ ഫീച്ചർ മൂവി കാണുമ്പഴാ അപ്പോൾ അപ്പോൾ ഇനിയും നമ്മൾ പുരോഗമിക്കാനുണ്ട് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഒരു ചെറിയ ഇരുപത് വർഷക്കാലം കൊണ്ട് നമ്മളെന്തോരം മാറി എന്ന് പണ്ട് ലാപ്ടോപ്പൊക്കെ ആണേലും മുടിഞ്ഞ വെയ്റ്റ് ഇപ്പം ഫോണിൻറ്റത്രേം പോലും വെയിറ്റില്ലാത്ത ലാപ്പും പിന്നെ ഇപ്പോഴത്തെ ഫാഷൻ തന്നെ എന്തൊക്കെ ഫാഷനാണ് ഇത് ഇല്ല പണ്ട് ഒര് പാൻറ്റും ഷർട്ടും ഇട്ട് കഴിഞ്ഞാൽ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ കീറിയ പാൻറ്റും കീറിയ ഷർട്ടും ഇടണം അതിനാണ് പ്രീമിയം എന്ന് പറയണത് അതിനൊക്കെ ആണേൽ മുടിഞ്ഞ വില എന്നാ ഒര് ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരുമാതിരി വല്ലാത്തൊരിതാന്നെ ഓ ഈ ഒര് ഇതൊണ്ടല്ലോ ഭയങ്കര സാധനമാണ് അത് കാരണം നമ്മള് പുതിയ പ്രവണതകളൊക്കെ കാണാൻ യൂസ് ചെയ്യും മെയിനായിട്ടും മ്യുസിയം ത്തില് ആണ് നമ്മള് പോവാറ് കാരണം പഴയ കാലത്തെ കാളവണ്ടിയും ചക്കറവും ഇതൊക്കെ ഓര്ക്കുമ്പഴേക്കും നമ്മളും ഒന്നാലോചിക്കും പണ്ടൊക്കെ ഇങ്ങനക്കെ നടന്ന് ഇപ്പോഴത്തെ ബസ് ബെൻസ് കാറും ബി എം ഡബ്ല്യൂ കാറൊക്കെ എന്നതാ പണ്ടത്തെ കാളവണ്ടിക്ക് അന്തസ് എന്നൊക്കെ പറയും പക്ഷെ ആരുവത് ഇത് ചെയ്യത്തില്ല അതിന് സുഖവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പഴയ കാലത്തെ അപ്പുപ്പൻമാർക്ക് അമ്മുമ്മമാർക്ക് അറിയത്തൊള്ളു അതുകൊണ്ട് അത് നമ്മളെന്ത് ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മള് പഴയ കാലത്തെ പ്രവണതകളില്ലെങ്കിലൊരു പ്രവണതയും നടക്കുകയില്ല കാരണം പഴയ കാലത്ത് നമ്മള് കാര്യങ്ങളൊക്കെ നടന്ന് നടക്കാതെ പോയിക്കഴിഞ്ഞ് ഒരു രീതിയിലുള്ള കാര്യങ്ങളും നടക്കുകയില്ല നല്ലതേ രീതിയിൽ നമ്മൾ എല്ലാം കാര്യങ്ങളും ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ആ പഴയ കാലത്തെ ഒരു ഇത് പ്രവണത പ്രവണതകളൊക്കെ അറിയാൻ നമ്മള് മെയിനായിട്ട് മ്യുസിയം വിസിറ്റ് ചെയ്യും കാരണം നമ്മടെ ഹിസ്റ്റോറിക് മ്യുസിയം കാരണം ഈജിപ്തിൽ ഉള്ള മ്യുസിയമൊക്കെ അത് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പഴയ ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കാൻ കഴിയും ഒരു സമയ ഒരു കാലം കഴിയുമ്പഴും നമ്മളിതുപോലെ ഹിസ്റ്ററിയായിട്ട് ആരുടെയെങ്കിലും ഒക്കെ ചുമരിലിരിക്കണ കാണാം കാരണം ഇപ്പോഴത്തെ ഈ പഠിപ്പിക്കണ ക്ലാസ് റൂമൊക്കെ തന്നെയാ ക്ലാസ് റൂം പോലെയല്ല അടുത്ത വർഷം വരാൻ പോണെ ഇനി സ്മാർട്ട് ബോർഡൊക്കെ ആയിരിക്കും തലേക്കൂടെ ഓടുന്നത് ഇല്ലേ കയ്യില്ലെല്ലാർടേം കയ്യിൽ ബുക്കിനും പേനക്കും പകരം ടാബും ഫോണും ആയിരിക്കും ഈ നോട്ട്സെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും എന്നിട്ടതനുസരിച്ച് തന്നെ എ ഐ യെക്കൊണ്ട് വരപ്പിക്കും അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങള് വരാൻ ചാൻസ് ഉണ്ട് അപ്പം പല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളുവൊക്കെ ഇങ്ങനെ പെടപെടേന്ന് വന്ന് കഴിയുമ്പഴേക്കും നമ്മളെല്ലാം എന്ത് ചെയ്യും അപ്പം അങ്ങനത്തെ മാറ്റങ്ങൾ വരാതെ നമ്മള് സത്യം പറഞ്ഞാൽ ഇല്ലെ പുരോഗമിച്ചോണ്ടിരിക്കുക ഇപ്പം തന്നെ ഓൾറെഡി പുറം രാജ്യങ്ങളെല്ലാം അത് പ്രാവർത്തികമായി കഴിഞ്ഞു നമ്മുടെ ഇവിടെത്തെ സർക്കാരും നല്ല ടീംസും ഒക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെയിങ്ങനെ ആമ ഇഴയണ പോലെ ഇഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് കാലങ്ങളൊക്കെ അങ്ങ് തീർന്നു പിന്നേന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല് നമ്മുടെ പഴയ കാലത്തെ പ്രവണതകളൊക്കെ കാണാന് നമ്മള് മ്യുസിയത്തിൽ തന്നെ പോകണം കേട്ടോ കാരണം അവിടെയാണ് നമ്മൾ ഈ പഴയ കാലത്തെ പെയിൻറ്റിങ് കാരണം അവിടുത്തെ റോയല്ന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവിടുത്തെ സ്കൾപ്ച്ചേർസും ആർട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ മീൻസ് അതൊരു ഭംഗിയായിരുന്നു മീൻസ് ഒരെഞ്ചിനിയറിങ്ങും ഒരു കോഴ്സും ഇല്ലാതെ അവരെന്ത് വൃത്തിക്കാ കാര്യങ്ങളൊക്കെ കൊത്തി വെക്കുകയും പെയിന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഇപ്പഴത്തെ ഇത് കണ്ടോ എഞ്ചിനീയറൊക്കെ പഠിച്ചിട്ട് സിംപിൾ ഡിസൈൻ ബ്ലോക്ക് ബ്ലോക്ക് ബ്ലോക്ക് ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ കുഴപ്പം